ഞങ്ങൾ എവിടെങ്കിലും പോകുമ്പോൾ അവിടെ നല്ല ചെടിയുണ്ടെങ്കിൽ അവരോട് ചോദിക്കും നിങ്ങൾ ഇത് എങ്ങനെ ഇത്ര ശ്രദ്ധിക്കുന്നത് ഇതിന് എന്തൊക്കെ ഇടുന്നത് ഇങ്ങനെയെല്ലാം അവരോട് ചോദിക്കും അതുപോലെ അമ്മയോട് ചോദിക്കും നിങ്ങൾ ഒരു ചെടി നടുമ്പോൾ അതിനെന്തെല്ലാം ആക്കണം എന്നെല്ലാം അമ്മയോട് ചോദിക്കും പിന്നെ വേറെ ഒക്കെ പഠിച്ച പിള്ളേരുടെ വീട്ടിലെല്ലാം പോയിട്ടാകുമ്പോൾ അവിടെ നല്ല വാങ്ങോണ്ടാകും ഭംഗിയിൽ കാണുന്നുണ്ടാവും ചെടിയെല്ലാം അപ്പം നമ്മൾ ഓറോടും ചോദിക്കും ഈ ചെടിക്ക് എന്ത് ഇട്ടത് എങ്ങനെ ഇത്ര നന്നായിട്ട് നോക്കിയത് ആടുത്തമ്മേടും ചോദിക്കും അങ്ങനെ നമ്മൾ കുടുംബശ്രീക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിൽ ചെടി കാണും നല്ല ചെടിയെല്ലാം കാണുമ്പോൾ നമ്മൾ ചോദിക്കും ഈ ചെടിയെല്ലാം ഇങ്ങനെ നിങ്ങൾ വളർത്തിയത് ഇത്ര ഭംഗിയായിട്ട് ഇത്രയും നന്നായിട്ട് വളരാൻ എന്തിയെ അതിന് ഇട്ടത് അത് ഏത് സമയത്ത് നിങ്ങൾ നടുന്നത് മഴ വരുമ്പോഴോ അല്ല മഴ വന്ന് കഴിഞ്ഞിട്ട് ആയിട്ട് വേനൽ കാലത്താണോ നടുന്നത് ഇത് നിങ്ങ ഇങ്ങനെ പീടികേന്ന് വാങ്ങിയിട്ട് നട്ടതാണോ അല്ല വേറെ വീട്ടിൽ നിണ്ണ് കൊണ്ട് വന്നിട്ട് നട്ടിറ്റ് ഇങ്ങനെ വളർത്തിയതാണോ ഇവിടെ ഇല്ലതന്നെ മുറിച്ചിട്ട് നട്ടതാണോ പിന്നെ നടുമ്പോൾ നിങ്ങൾ എന്തെല്ലോടുന്നെ ഇതെങ്ങനെയാണ് നടുന്നത് എന്നെല്ലാം അവരോട് ചോദിക്കും അതേ പോലെ അടുത്ത വീട്ടിലെല്ലാം ചെടി വേണോന്നുണ്ടെന്നല്ലേ അപ്പം അവരോടും ചോദിക്കും നിങ്ങൾ എങ്ങനെ ഇത് നട്ടത് ഇനി നടുമ്പോൾ എന്തൊക്കെ ഇട്ടീനി ഇപ്പം നമ്മൾ നമ്മളെക്കാളും മുതിർന്ന ആൾ എങ്ങനെ നടുന്നത് എന്ന് നല്ല പാങ്ങോടെ ചെടി നോക്കുന്ന കുറേ ആൾ ഉണ്ടായിരുന്നില്ലേ അവരോടെല്ലാം ചോദിക്കും അതുപോലെ എൻ്റെ അനിയത്തിയോട് ചോദിക്കും അനിയത്തി നന്നായിട്ട് ചെടിയെല്ലാം നട്ടിട്ട് വളർത്തുന്നു അപ്പോൾ ഒളോടും ചോദിക്കും നീ എങ്ങനെ ഇതിനെ ഇത്ര ശ്രദ്ധിക്കുന്നത് ഇതിനെന്തെല്ലാം ഇട്ടീനി ഈ ചെടി ഇങ്ങനെ വളരണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ഇടണം അതുപോലെ ഇത് തണ്ട് നടുന്നതോ അല്ല വേരോടെ വേണമോ നടുമ്പോൾ വേര് വേണമോ വേര് ഉണ്ടെങ്കിലേ തെഅ്ക്കുള്ളോ അല്ലാതെ തണ്ട് നട്ടെങ്കിൽ തെഅ്ക്കുവോ പിന്നെ ചെറിയ ചെറിയ ബാക്കിയെല്ലാം ചെറിയ ചെറിയ ചെടിണ്ടാന്നല്ലേ അതെല്ലാം നമുക്കിങ്ങനെ പൊളിച്ചിട്ട് നടുന്ന ചെടിയെല്ലാം ആണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും എങ്ങനെ പൊളിച്ചാലത് തെഅ്ക്വാ അത് തെഅ്ക്കണങ്കി നിങ്ങൾ എന്തിടെന്നെ അതിന് ആ ചെടിക്ക് എന്താണ് ഇട്ടിറ്റ് അത് അത്ര വളന്നത് എങ്ങനെ അങ്ങനെ ഓളോടും ചോദിക്കും അതെ പോലെ ഞങ്ങൾ വീട്ടിലെല്ലാം പോകുമ്പോൾ തോട്ടത്തിൽ കാര്യത്തെല്ലാം നല്ല വണ്ണം ചെടിയുണ്ടാവും അപ്പോൾ ആ വീട്ടുകാരനോട് ചോദിക്കും ഈ ചെടി ആരിങ്ങനെ നോക്കുന്നത് നിങ്ങൾ തന്നെ അല്ലങ്കിൽ പണിക്കാരുണ്ടോ ആ പണിക്കരുണ്ടെങ്കിൽ ആ പണിക്കാരനെക്കൊണ്ട് പരിചയപ്പെടും പരിചയപ്പെട്ടിട്ട് ഓനോടും ചോദിക്കും ഇത് എങ്ങനെ ഇത്ര ഭംഗിയോടെ അതിനെ എന്തിട്ടിറ്റ് ഇങ്ങനെ വളർത്തിയത് അങ്ങനെ എല്ലാം ചോദിക്കും ഓനോടും അതുപോലെ ഇപ്പോൾ നമ്മൾ ചെടി വാങ്ങാൻ പോകുന്നില്ലേ അപ്പം അയാളോട് ചോദിക്കും ആ വാങ്ങുമ്പാട് ഒരാൾ ഉണ്ടായിരുന്നല്ലേ അയാളോട് ചോദിക്കും ഇപ്പം നമ്മൾ ഈട്ന്ന് ചെടി കൊണ്ടോയിട്ട് നടുമ്പോൾ അതിനെന്തിടണം ചട്ടിയിൽ നടണോ അല്ലാതെ ഇങ്ങനെ മണ്ണിലാന്ന് നട്ടാൽ മതിയോ ആ നടുമ്പോൾ ചാണകപ്പൊടിയോ വളമോ അല്ല വേസ്റ്റ് പച്ചക്കറികൾ മുറിച്ചതെല്ലാം അതിൽ ഇടാമോ മുട്ടയുടെ ഓട് റോസിൻ്റെ തൈക്ക് അത് ഇട്ട് ഇടൽ ഉണ്ട് അപ്പം അതിടാമോ റോസ് എങ്ങനെ ഇത്ര നല്ല റോസ് എല്ലാം പിടിക്കുന്നത് റോസെല്ലാം പുഴു തിന്നാതെ പോലെ അയിനെന്തെങ്ങും ഇടണ്ടേ അത് എന്തിടും നിങ്ങൾ അങ്ങനെയൊന്ന് ചോദിക്കും റോസ് നടുമ്പോൾ നമ്മൾ മുട്ട തൊലിയെല്ലാം അതിൽ ഇട്ട് അങ്ങ് നല്ല റോസ് പിടിക്കുന്നതെന്ന് പറയുന്നതല്ലേ അതിൽ ഇടൽ ഉണ്ടോ നിങ്ങൾ ചായപ്പൊടി ഇടലുണ്ടോ അങ്ങനെല്ലാവരോടും ചോദിച്ചിട്ടറിയും അതുപോലെ ഇപ്പോൾ അവിടെ സ്കൂളിൽ കുറേ നട്ടിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ അവിടെ ഒരാൾ ഉണ്ടാവും നടാനായിട്ട് ആ ചേച്ചിയോടും ചോദിക്കും ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത്ര ഭംഗിയോടെ നട്ടത് അതിൽ എന്തിട്ടിട്ടാണ് നട്ടത് ചാണകപ്പൊടി പിന്ന വളകം അങ്ങനെ എല്ലാം വെറും മണ്ണിൽ നട്ടിട്ട് ഇത്ര ഉഷാറായതാന്നല്ലോ ഓറോടും ചോദിക്കും അപ്പോൾ ഒറൈന് ഇട്ടതെല്ലാം നമ്മളോട് ഓറും പറഞ്ഞ് തരും അപ്പം അത് നമ്മൾക്ക് അതു അറിഞ്ഞില്ലേ അങ്ങനെ നമ്മൾ എവിടെങ്കിൽ എന്തേനും ഫങ്ഷന് പോയെങ്കിൽ ആട്ന്ന് ചെടി കണ്ടെങ്കിൽ അവരോട് ചോദിക്കും ഈ ചെടിയെല്ലാം വിലക്ക് കൊണ്ട് വന്നിട്ട് നട്ടതാണോ അല്ല ഇവിടെ നട്ടിട്ട് ഇങ്ങനെ ആയതാണോ നട്ടതിൽ പിന്നെ ഇത്ര ഉഷാറായതാണോ ഇതാര് നട്ടത് അപ്പം ആ നട്ട ആളെ കണ്ടിട്ടാകുമ്പോൽ നമ്മൾ അവരോട് ചോദിക്കും ഇതിന് എന്തിട്ടിറ്റ് നട്ടത് നല്ല ഭംഗിയുണ്ട് അപ്പം അത് ഏത് സമയത്ത് നടണം നമ്മൾ മഴ വരുമ്പോളോ തണുപ്പിൻ്റെ സമയത്തോ അപ്പോൾ മുല്ല പൂവെല്ലാം തണുപ്പിൻ്റെ സമയത്ത് നടുന്നത് അങ്ങനെ നടുന്നതെല്ലാം നമ്മൾ ആ നട്ടവരോട് ചോദിക്കും അവർ പറഞ്ഞ് തരും അതുപോലെ നമ്മൾ നട്ടാൽ അപ്പോൾ ഈ വേണ്ടതെല്ലാം അവർ പറയും നമ്മളോട് ഇനി ചാണകം ചാണകപ്പൊടി ഇടുന്നെങ്കിൽ അത് പറയും അല്ലാതെ പിന്നെ പീടിന്നെല്ലാം വളപ്പൊടി വാങ്ങിയിട്ട് അത് ഇടുന്നെങ്കിൽ അത് അവർ നമ്മളോട് പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾക്കറിഞ്ഞ് നമ്മൾ അതിന് അതുപോലെ ഇട്ടിട്ട് വളർത്തും പിന്നെ അങ്ങനെ തന്നെ നമ്മളെ അമ്മയോട് ചോദിക്കും അമ്മായിയോട് ചോദിക്കും അമ്മായിടടെ അങ്ങനത്തെ ചെടിയെല്ലാം ഉണ്ടെങ്കിൽ അമ്മായിയോടും ചോദിക്കും എളേമ്മയോടും ചോദിക്കും ഇത് എങ്ങനേളേമ്മേ നിങ്ങൾ ഇങ്ങനെ ഒക്കെ ഇയിനെന്ത്ട്ടിനി എന്ന് എളേമ്മയോട് ചോദിച്ചിട്ട് നമ്മൾ അറിയും അപ്പം എളേമ്മയും പറഞ്ഞ് തരും അതുപോലെ അവിടെ ഏട്ടന്മാർ ചില വീട്ടിൽ ഏട്ടന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയെല്ലാം വളർത്താൻ ഏട്ടന്മാരും പറഞ്ഞ് തരും ഇതിന് ഇടേണ്ട സാധനം ഇതിനെ എങ്ങനെ വളർത്തണം മഴ പെയ്യുമ്പോൾ വേനൽക്കാലത്ത് തണുപ്പിൻ്റെ സമയത്ത് ഏതൊക്കെ ചെടി നടണം എന്ന് അവർ നമ്മൾക്ക് പറഞ്ഞ് തരും അപ്പം അത് നമ്മൾ അറിയും ഇങ്ങനെ അങ്ങനെ നമ്മളും വീട്ടിൽ വന്നിട്ടതുപോലെ അവർ പറഞ്ഞേര്ന്നേനെ നമ്മളും നട്ടിട്ട് നോക്കും അങ്ങനെയാണ് ചെടിയെക്കുറിച്ചിട്ട് നമ്മൾ അവരോടെല്ലാം ചോദിച്ചിട്ട് അറിയുന്നത്